ഫോട്ടോഗ്രാഫി ഒരു എൻ്റർടൈൻമെന്റ് ആയിട്ട് സ്റ്റാര്ട്ട് ചെയ്തുവെന്ന് പറയുന്നത് ഫോണ് കിട്ടിയപ്പോള് ഫോണ് എന്താണ് ഇങ്ങനെ നമുക്ക് കൊറോണ ബാച്ചായി ടെന്ത്തും പ്ലസ് വണ്ണും എല്ലാം കൊറോണ ബാച്ച് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഫോൺ മേടിച്ചുതന്നു നമുക്ക് ശരിക്കും പറഞ്ഞാല് ട്വൽത്ത് കഴിഞ്ഞിട്ടെ ഫോണ് മേടിച്ചുതരികയുള്ളൂവെന്നുള്ള രീതിയിലായിരുന്നു വീട്ടില് പക്ഷേ എന്താണ് ക്ലാസ് ഉള്ളതുകൊണ്ട് മേടിച്ചുതന്നതൊന്നുമല്ല പപ്പ ഒരു പുതിയ ഫോൺ മേടിച്ചു ആ ഫോണ് ഞാനെടുത്ത് ഓൺലൈൻ ക്ലാസ്സിനിങ്ങനെ യൂസ് ചെയ്യുകയായിരുന്നു അപ്പോള് അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സംഭവം പിന്നെ ചേട്ടൻ്റെ ഒരു പിന്നെ ചേട്ടൻ്റെ ഒരു പഴയ ഫോൺ ശരിയാക്കാന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതു വരുന്നതുവരെ പപ്പയുടെ ഫോൺ യൂസ് ചെയ്യുകയായിരുന്നു അപ്പോള് ആ ഫോൺ കിട്ടിയപ്പോള് തൊട്ടാണ് ഈ ഫോട്ടോഗ്രാഫിയുടെ ഒരു സാധനം തുടങ്ങിയത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഇങ്ങനെ ഫോട്ടോ നല്ല രീതിയിലെടുത്ത് പോസ്റ്റ് ഇടുക സ്റ്റോറി ഇടുക സ്റ്റേറ്റസ് ഇടുക അങ്ങനെ എന്താണ് അത് അപ്പോഴാണ് തുടങ്ങിയത് ആ ഒരു സമയത്താണ് തുടങ്ങിയത് പിന്നെ ഫോട്ടോഗ്രഫി ഒരു ആ ഫോട്ടോഗ്രഫി ഒരു നല്ല സാധനമാണ് നമുക്കൊരു ഹാപ്പി ഫീലിംഗ് കിട്ടും ഇങ്ങനെ നമ്മുടെ നല്ല ഫോട്ടോ നമ്മളെടുത്തിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പോള് ഒരു സ്റ്റേറ്റസ് ഒക്കെ ഇട്ടാല് പിന്നെയും പിന്നെയും എടുത്തുനോക്കുക ആര് നോക്കിയിട്ടുണ്ട് ആരെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടോ ഇത് ചെയ്ട്ടുണ്ടോ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ ആ ഫോട്ടോഗ്രഫി ഒരു നല്ല സാധനമാണ് ഒരു നല്ല എൻ്റർടൈൻമെന്റ് ഉള്ളൊരു സാധനമാണ് അതിപ്പൊള് ടെൻത്ത് പ്ലസ് വൺ തുടങ്ങിയപ്പോഴാണ് തുടങ്ങിയത് പിന്നെ പോകുമ്പോള് പോകുമ്പോള് കോളേജിലൊക്കെ വന്നപ്പോള് കുറെ പോസ്റ്റിടാനും സ്റ്റോറി ഇടാനും എന്താണ് ഇങ്ങനെ റീൽസ് ഇടാനുമൊക്കെ തുടങ്ങിയപ്പോള് അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവമെന്ന് പറയുന്നത്